കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്താണ് എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ ബാധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് അതിൻറ്റൊരു വളരെ മോശമായ സാഹചര്യത്തിലേക്കു പൊയ്ക്കൊണ്ടിരിക്കയാണ് മേ ബി ഒരു പത്തു വർഷം മുൻപു കാലാവസ്ഥയിൽ വന്നിരുന്ന വ്യതിയാനത്തിൻ്റെ വേഗതയെക്കാളും വളരെ കൂടുതൽ വേഗത്തിലാണ് ഇന്നു വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടു തന്നെയാണ് അപ്രതീക്ഷിതമായ മഴയും മഴയുമായിട്ടു ബന്ധപ്പെട്ട ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുകൾ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടാകുകയും ജീവന് ഭീഷണിയുണ്ടാകുന്നു പിന്നെ പ്രകൃതിയിലെ പോഷകങ്ങൾ അതായത് പ്രകൃതിവിഭങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു മനുഷ്യൻ്റെ ജീവൻ ജീവനും സ്വത്തും ഭീഷണിയായിട്ടു മാറുന്നു അതുപോലെ തന്നെ വേറൊരു എക്സ്ട്രീമായിട്ടു വരുന്നത് വേറെ ചൂടു കൂടുന്നു കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് വരുന്നത് ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം മനുഷ്യൻ തന്നെ വരുത്തി വെച്ചൊരു വിനയമായിട്ടു തന്നെ ഇതിനെ കണക്കാക്കണം എന്നാണ് എൻ്റെയും അമിതമായ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ജീവിത ശൈലിയിൽ വന്ന വ്യതിയാനങ്ങൾ പ്രകൃതി നമ്മുടെ തന്നെ എൻ്റെ തന്നെ ജീവൻ്റെ നിലനിൽപ്പിനാണെന്നുള്ള ബോധ്യം ഇല്ലായ്മ ഇങ്ങനെ പല ഘടകങ്ങൾ അതിലേക്കു കൂട്ടി ചേർക്കപ്പെടുന്നുണ്ട്

ഒരു പക്ഷേ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ പ്രകടമായ വ്യത്യാസം വരുത്തുകയും വലിച്ചെറിയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൾ ഒരു സംസ്കാരമുണ്ടല്ലോ അതു മാറ്റി പിടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ടു വലിച്ചെറിയുന്ന ഉപയോഗം കണ്ടമാനം വസ്തുക്കൾ വേണമെങ്കിലും വേണ്ടെങ്കിലും വാങ്ങിച്ചു കൂട്ടുന്ന കൺസ്യൂമർ ഒരു മെൻറ്റാലിറ്റി ഇതെല്ലാം ഒരു പരിധിയിലപ്പുറം കാലാവസ്ഥ വ്യതിയാനത്തിനു കരണമായിട്ടു മാറുന്നു അതുപോലെ കൃഷിയിൽ ഉപയോഗിക്കുന്ന വളങ്ങൾ മരുന്നുകൾ ഇവയെല്ലാം ഒരു പക്ഷേ കാർഷിക വിഭവങ്ങൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ അത് എന്താണ് അപ്രതീക്ഷിതമാണ് അല്ലെങ്കിൽ വേറൊരു രീതി ഇൻഡയറക്റ്റ് ആയിട്ട് അതു പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ ബാധിക്കുന്നു